ഒമ്പത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ആറ് ഒമ്പത് ലഷ്ക്ഷത്തി ആ അറുപത്തഞ്ച് എട്ട് ലക്ഷത്തി അമ്പത്താറായിരത്തി നാന്നൂറ്റി അറുപത്തഞ്ച് ഏഴ് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി അറുന്നൂറ്റി എമ്പത്തഞ്ച് ആറ് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റിപ്പതിനഞ്ച്